നമുക്ക് ചുറ്റും കണ്ടുവരുന്ന സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാന രൂപങ്ങൾ പറഞ്ഞാൽ ഇപ്പോൾ ലാപ്ടോപ്പുകൾ മൊബൈൽ ഫോൺസ് ടാബ് ഇതെല്ലാം തന്നെയാണ് അത് നമ്മളെ ജീവിതത്തെ എങ്ങനെ ബാധിച്ചുവെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു കഴിഞ്ഞ പത്തു പതിനഞ്ചു വർഷങ്ങൾ ഞാൻ വളരെ ഒരു മനുഷ്യ യുഗത്തെ മുന്നോട്ട് നയിച്ചിട്ടുണ്ട് കാരണം ഇപ്പോൾ നമ്മൾ പണ്ട് കാലങ്ങളിലെ ഒരു ഇരുപത് വർഷം മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന കമ്പ്യൂട്ടറിൽ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മുടെ വിരൽത്തുമ്പത്താണ് ഇപ്പം നമുക്ക് പോർട്ടബിളായിട്ടിപ്പോൾ ഉദാഹരണത്തിന് ലാപ്ടോപ്പ് നമുക്കെവിടെ വേണമെങ്കിലും കൊണ്ടുനടക്കാം അതു തീരെ ഇച്ചിരി വലിപ്പം കുറഞ്ഞ ലാപ്ടോപ്പുകളും ഇപ്പോൾ അവൈലബിളാണ് അതുപോലെ നമുക്ക് ഈ കമ്പ്യൂട്ടറിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ മൊബൈലിൽ നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു ഈവൻ ഈവൻ ഇപ്പം സ്കാനിങ്ങ് ഇത് ഡൗൺലോഡിങ്ങ് അപ്ലോഡിങ്ങ് ഈച്ച് ആൻ്റ് എവെരിതിങ്ങ് അതും എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ മൊബൈലിലൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഒരു വെബ്സൈറ്റിൽ കയറി നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്നതിനോ അതുപോലെ തന്നെ നമ്മളുടെ എല്ലാ കാര്യങ്ങളും നമ്മളുടെ ഈവൻ നമ്മളുടെ ഫോട്ടോ എടുത്ത് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതിനും അതുപോലെതന്നെ നമുക്ക് ഇപ്പം മൊബൈലിൽ തന്നെ നമ്മൾ നമ്മളുടെ സിഗ്നേച്ചറ് നമുക്ക് ഇട്ടു നമ്മൾ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ വീഡിയോ കോൾ വഴി സംസാരിക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്പം വിദേശത്ത് നമുക്ക് എത്രയകലെ നിന്നാണെങ്കിലും ഇപ്പം വാട്സപ്പിൻ്റെ വരവോടു വരവോടു കൂടി നമ്മൾ ഡയറക്ട് കോളുകൾ നമ്മൾ ഡയറക്ട് ഇപ്പം സംസാരിക്കുന്നത് അല്ലെങ്കിൽ എക്സ്പെൻസീവായിട്ടുള്ള കാര്യങ്ങൾ വളരെ കുറക്കണം നേരത്തെയൊക്കെ നമ്മൾ വിദേശത്തൊക്കെ ഉള്ളവർ വീട്ടിൽ എല്ലാ എല്ലാ ദിവസവും അല്ലെങ്കിൽ ആഴ്ച്ചയിൽ ഒരിക്കൽ ഇപ്പോൾ വീട്ടിൽ വിളിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കാശ് മുടക്കി വിളിച്ചുകൊണ്ട് നിന്നത് ഇപ്പം ഇപ്പം മൊബൈലിൽ വാട്സാപ്പിൻ്റെ വരവോടു കൂടി വാട്സാപ്പ് കൂടെ നമുക്ക് ഫ്രീയായിട്ട് നമുക്ക് വാട്സപ്പിലൂടെ നമുക്ക് ഫ്രീയായിട്ട് ചിലവില്ലാതെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ളവരോട് സംസാരിക്കാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചാറ്റിങ്ങ് അതുപോലെ തന്നെ പിള്ളാർക്കൊക്കെയാണെങ്കിൽ ഇപ്പം സമയം ചിലവഴിക്കാൻ ഗെയിംസ് നിരവധി ഗെയിംസുകൾ മൊബൈലിൽ കളിയ്ക്കാൻ സാധിക്കുന്നു അതുപോലെ തന്നെ ഇപ്പം ഗ്രൂപ്പ് കോൾ ഇപ്പോൾ ഒരു കുടുംബത്തിലെ അല്ലെങ്കിൽ ഫ്രണ്ട്സുകൾ കൂടിയിട്ട് നമ്മൾ ഒരു ഒരു സ്കൂൾ ഗ്രൂപ്പിൻ്റെ നമ്മളിപ്പം ഒന്നിച്ച് പഠിച്ച ഒരു പത്തുപേർ ഒന്നിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് കോളിൻ്റെ ഒരു ഫെസിലിറ്റി നമുക്ക് വളരെ ഉപകാരപ്രദമാണ് അപ്പം ഓരോരുത്തർ ഒരേ കാര്യങ്ങൾ നമ്മൾ വീണ്ടും പലരോടും സംസാരിക്കേണ്ടാവശ്യം വരുന്നില്ല അതുപോലെ തന്നെ ഓൺലൈൻ ടീ വി ഇപ്പം നമുക്ക് നെറ്റിൻ്റെ ഫെസിലിറ്റിയുണ്ടെങ്കിൽ മൊബൈലൂടെ തന്നെ ടീ വിയിൽ വരുന്ന എല്ലാ ചാനലുകളും എസ്പെഷ്യലി ഫോർ എക്സാമ്പിൾ സ്പോർട്സ് വേൾഡ് കപ്പ് ഫുട്ബോള് വേൾഡൊക്കെ വേൾഡ് കപ്പ് ക്രിക്കറ്റ് ഹോക്കി ഇതെല്ലം തന്നെ നമുക്ക് മൊബൈലിലൂടെ കാണാൻ സാധിക്കുന്നു അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫി നമുക്ക് എപ്പം എന്നാൽ നേരത്തെയൊക്കെ നമ്മളിപ്പം ഒരു ഒരു പിക്നിക്കോ ടൂറോ പോവുമ്പോഴത്തേക്ക് ഒരു ക്യാമറ കയ്യിൽ കരുതേണ്ട ആവശ്യമുണ്ടായിരുന്നു ഇപ്പം അതിൻ്റെ ആവശ്യമില്ല നമ്മളെ മൊബൈൽ വച്ച് നമുക്ക് എല്ലാ ഫോട്ടോസും നമുക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ട് അപ്പം ഇപ്പം അങ്ങനെയുള്ള ഒരുപാട് ബെനിഫിറ്റ് ഇപ്പം ഇതു ഇതു കൊണ്ടുള്ള സാങ്കേതിക വിദ്യയുടെ വരവോടു കൂടി നമുക്ക് സാധിച്ചിട്ടുണ്ട് അതുതന്നെ ഇതൊക്കെത്തന്നെയാണ് പറയാനുള്ളത്